ആ പറഞ്ഞോ ഞാൻ ഒരു വെജിറ്റബിൾ ഡീലർ ആയിരുന്നു നിങ്ങളുടെ ഫാമിൽ നിന്ന് കുറച്ച് പച്ചക്കറി എടുക്കാൻ വേണ്ടിയിട്ട് ആ അപ്പം എനിക്ക് കുറച്ച് എങ്ങനെ പച്ചക്കറി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആയിട്ടും തക്കാളി പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഇല്ലേ ഇപ്പം തക്കാളിക്ക് ഒക്കെ ഒന്നാമത് വില കൂടുതലാണ് നടക്കുമ്പം ആ ഹോൾസെയിൽ ആണല്ലേ ഓക്കെ ആ ചെയ്തോളും അല്ലേ ഓക്കെ അപ്പം തക്കാളി കുറച്ച് നമ്മൾ കൂടുതൽ എടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം രണ്ട് ഷോപ്പ് ഉണ്ട് ആ രണ്ട് ഷോപ്പിലേക്കും കൂടിയാണ് വേണ്ടത്

കുഴപ്പം ഒന്നും ഇല്ലല്ലോ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത് അവിടെ

ഓക്കെ എല്ലാം ഉണ്ട് അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ അങ്ങ് എങ്ങനെ ആണെങ്കിലും ചെയ്യാം അല്ലേ ഓക്കെ അത് കറക്റ്റ് സ്ഥലം എവിടെ ആയിരുന്നു കോഴിക്കോട് എവിടെ ആയിട്ടാണ് താമര ചുരം കഴിഞ്ഞിട്ട് അല്ലേ ഓക്കെ ഓക്കെ അവിടെത്തന്നെ താമരശ്ശേരി ആ ഭാഗത്ത് അല്ലേ എൻ്റെ വീട് എൻ്റെ വീട് കോഴിക്കോട് ആയിരുന്നു അപ്പം ഞാൻ കോഴിക്കോട് താമരശ്ശേരിക്ക് വന്നിട്ട് അവിടുന്ന് എടുത്താൽ മതി അല്ലേ അര കിലോ ആ

ആ ഓക്കെ ഓക്കെ അപ്പം ഇന്ന് പറിച്ച് വെച്ച് ഞങ്ങൾ വൈകുന്നേരം വന്ന് കളക്ട് ചെയ്താൽ മതിയായിരിക്കും അല്ലേ ഓക്കെ ഓക്കെ അങ്ങനെ ആ ഓക്കെ ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ നാളെ വരാം നാളെ എന്തായാലും ഞങ്ങൾ വണ്ടിയും കൊണ്ട് വരാം പിക്കപ്പ് കൊണ്ട് വരാം അത് നിങ്ങൾ നാളത്തേക്ക് ഒന്ന് പറിച്ച് വെച്ചാൽ മതി ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ഉം ആ